ഹലോ ആ അത് ഇത് വളക്കടയാണോ വളം വളം ആ ആ എനിക്ക് എനിക്ക് ഇത്തിരി വളം ആവശ്യമാണ് അത് പൂ പൂക്കളുണ്ടാകുന്നതിനുള്ള എന്ന് പറയുന്ന ആ വളം വേണം പിന്നെ ആ പിന്നെ ഈ പ മറ്റു മറ്റു മറ്റു ചെടികൾ ചെടികളല്ലാതെ വൃക്ഷങ്ങൾക്ക് വൃക്ഷങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വളങ്ങൾ വൃക്ഷം അല്ല ഈ മലക്കറികളെ മലക്കറികൾ വെജിറ്റബിലുകൾ ആ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളുണ്ടോ ആ

ആ അതെ നമുക്ക് വീട്ടിൽ എത്തിക്കാൻ കഴിയുമോ നമ്മുടെ വീട് ശ്രീകാര്യത്തിനടുത്താണ് ആ പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് എല്ലാ വളക്കങ്ങളും ഒരു രണ്ട് കിലോ പു പൂക്കൾ ഉണ്ടാകുന്നത് ഒരു കിലോ മതി ബാക്കി എല്ലാ വളം അഞ്ച് കിലോ വീതം വേണം ആറ്റംപോസ് അങ്ങനൊക്കെയുള്ള വളങ്ങൾ ഇച്ചിരി കൂടുതൽ ആവശ്യമാണ് അത് എത്തിക്കാൻ കഴിയുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു വീട്ടിൽ എത്തിച്ചാൽ വലിയ ഉപകാരം തന്നെയാണ് ആ ആ ആ ആ അപ്പോഴേ ഒരു പ പതിനൊന്ന് മണി ടൈമിലൊക്കെ വീട്ടിൽ ആളു കാണുളളൂ ആ സമയത്തൊക്കെ ആയിട്ട് വരുമെങ്കിൽ ആ നല്ല കാര്യമാണ് അ അ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് സമയം കഴിഞ്ഞാൽ ആൾ കാണില്ല വാ വാഴീ പൂക്കളുണ്ടാകുന്നതിനുള്ള വളം ആണെങ്കിൽ കുറച്ച് മതി അത് രണ്ട് കിലോ മതി ബാക്കിയുള്ളതെല്ലാം അഞ്ച് കിലോ വീതം വേണം അത് നേരെ വരില്ലേ ആ ആ ആ ആ ആ ആ നമ്പര് വീ ലൊക്കേഷൻ ശ്രീകാര്യത്തിന് അടുത്തായിട്ട് വരും വീ വീട്ടിലെ നമ്പറോ അതോ ഫോൺ നമ്പറ് ഫോൺ നമ്പറ് മതിയോ ആ ഫോൺ ഫോൺ നമ്പറാണെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് അറുപത്തൊന്ന് മുപ്പത്തേഴ് മുപ്പത്തി രണ്ട് പൂജ്യം ഒൻപത് എന്റെ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ ഞാൻ അവിടെ ഉണ്ടാകും ആൾ അപ്പോൾ തന്നെ ആൾ ഉണ്ടാകും